സ്കൂളിന് പുറത്തുള്ള ട്യൂഷനെക്കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല അഭിപ്രായം അല്ല കാരണം എന്തെന്ന് വച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നിലയിൽ പൈസ കൊടുത്തിട്ട് തന്നെയാണ് നമ്മളെ ഓരോ കുട്ടിനേയും സ്കൂളിൽ ചേർത്തുന്നത് ഗവർമെന്റ് സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിലും നമ്മൾ അത്യാവശ്യം ചില ഫണ്ടുകളൊക്കെ കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവർ ടീച്ചർമാർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കുട്ടികളെ അവിടെ നിന്ന് പഠിപ്പിക്കാറുമുള്ളത് ചില കുട്ടികൾക്ക് അവിടെ ശ്രദ്ധിക്കാൻ കഴിയില്ലായിരിക്കാം എന്നത് കൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ അധിക പൈസ ചിലവാക്കി കൊണ്ട് വേറെ ഒരു ഇൻസ്റ്റിട്യൂഷനിൽ ട്യൂഷന് പോകേണ്ട ആവശ്യം യഥാർഥത്തിൽ ഇല്ല സ്കൂളിൽ നിന്ന് തന്നെ പഠിക്കാവുന്ന കാര്യങ്ങളെ ഉള്ളു അതിന് പുറമെ ആയിട്ട് വേറൊരു ഇൻസ്റ്റിട്യൂഷനിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട ആവശ്യകത ഒന്നും ഇല്ല